ഹലോ താങ്കൾ ആരാണ് ഞാൻ ഇത് ടൂറിസ്റ്റ് ഏജൻ്റ് ആണ് ഓക്കെ താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് ഞങ്ങളേൽ നിന്ന്

കഴിക്കാനുള്ള ഫുഡ് എല്ലാം പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്യ് അറേഞ്ച് ചെയ്തു തരാം തരും പിന്നെ അറേഞ്ച് ചെയ്തു തരും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും ഞങ്ങളുടെ ഈ ഏജൻ്റ് നിങ്ങൾക്ക് ഒരു യാത്ര സഫലീകരിക്കാൻ പോകുന്നത് പിന്നെ എന്തെല്ലാം അറിയണം താങ്കൾക്ക് ഉറപ്പാണ് ഉറപ്പാണ് വാഹനമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല പല ടൂറിസ്റ്റുകളുമായി നമുക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരേ ഒരു ഒരു ഒരു ഒരേ ഒരു ഇതിൽ നിങ്ങൾക്ക് ഞങ്ങൾ ബസിനെ അറേഞ്ച് ചെയ്തു തരും അതല്ല മറ്റു മറ്റ് ബ്രാഞ്ചുകളിലായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് മറ്റുള്ള വെബേറെയായിട്ടാണോ ഒരുമിച്ചിട്ടാണോ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ഞങ്ങൾ അതിനുള്ള പ്ലാനിങ്ങെല്ലാം ഇപ്പോൾ തന്നെ നടത്താം നമ്മളെ ഞങ്ങളുടെ മുകളിലുള്ള ഓരോടു പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കിത്തരാം ഓക്കെ പിന്നെ വേറെ എന്തെല്ലാം വിവരം നിങ്ങൾക്ക് അറിയണം

കാശിൻ്റെ കാര്യം ഡിസ്കൗണ്ട് എന്നു പറയുന്നത് നമ്മൾ ഇന്ന് തന്നെ ഒരു ആറായിരം ഏഴായിരം എന്ന ഒരു മാർജിൻ്റെ ഒരു പുറത്താണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ നിങ്ങളുടെ ഫുഡുമായും ഫുഡായും അതുപോലെ തന്നെ റൂമ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇത് എന്ത് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും വലിയ അത് ഞമ്മടെ ഭാഗത്തു നിന്ന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്നു പറയുന്നത് പിന്നെ പിന്നെ അതുപോലെ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യമായ സാധനങ്ങൾ വാങ്ങണം വാങ്ങണമെങ്കിൽ എല്ലാം നിങ്ങൾ തന്നെ ചിലവഴിക്കണം ഓക്കെ രാത്രി നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാം ചിലപ്പോൾ മാറി മാറി താമസിക്കേണ്ടി വരും കാരണം എല്ലാവർക്കും ഒരേ പോലെ റൂമ് കിട്ടണം എന്ന് ഇല്ലല്ലോ ഒരു അത് ഇപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ കഴിയില്ല ഒരു സമയം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരുമിച്ച് ഇരിക്കാൻ ഒരു സമയം സാധിക്കില്ല എന്ന് വന്നിരിക്കാം പക്ഷെ റൂമുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നല്ല വെടിപ്പോടെയുള്ള റൂമുകൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു